ഓ നമ്മുടെ ഈ ഇൻ്റർനെറ്റ് കാലത്ത് മലയാള ഭാഷയ്ക്ക് നമ്മുടെ ഇടയിൽ വന്ന മാറ്റങ്ങൾ എന്നൊക്ക പറഞ്ഞാൽ നമ്മളിപ്പം ഒരു എൻ്റെ നമ്മളെ ടെക്സ് ബോഡ് അതിനകത്ത് മലയാളം ഉണ്ട് പിന്നെ ഏതൊരു ആപ്പ് എടുത്താലും അതിനകത്ത് മലയാളത്തിൻ്റെ ഒരു ഇത് ഉണ്ട് അതായത് മലയാളം ഉപയോഗിക്കാൻ പറ്റും അതിനകത്ത് ഇപ്പോൾ വാട്സപ്പ് എടുത്താൽ അതിനകത്ത് ഉപയോയിക്കാം യൂട്യൂബ് എടുത്താൽ നമ്മൾ സ്പീക്ക് പറയുന്നത് അത് മലയാളത്തിലാക്കാം പിന്നെ നമ്മളെ കോൾ ഹിസ്റ്ററി കോള് അതെല്ലാം മലയാളത്തിലാക്കാം അങ്ങനെ ഇപ്പം എന്തൊക്കെ നമ്മുടെ ഇൻ്റർനെറ്റിൽ ഇംഗ്ലീഷ്ൽ വരുന്നു അതതേപടി മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം പിന്നെ മലയാളം ബുദ്ധിമുട്ടുകൾ അല്ല ഇംഗ്ലീഷ് ഒക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നേരെ ലാംഗ്വേജ് മാറ്റി മലയാളത്തിലേക്ക് ആക്കി അങ്ങനെയെക്കെ ചെയ്യാം ഇതാണ് നമുക്ക് മലയാള ഭാഷ ഇൻ്റർനെറ്റും ആയിട്ടുള്ള കുറച്ച് ബന്ധമാണ് അതൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ വലിയ മാറ്റങ്ങളൊന്നും ആയിട്ടില്ല എന്നാലും